ഇന്ത്യന് തൊഴിൽ വിപണിയൽ ഇന്ന് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഉൽപാദനം കൂടുതൽ ലഭ്യമാവുമ്പോള് വില ഇടിയുന്നു പ്രത്യേകിച്ച് കര്ഷകരെ സംബന്ധിച്ച് വിവിധങ്ങളായ സാധനങ്ങൾ പാൽ ആകാം മറ്റ് കര്ഷ ധാന്യങ്ങളാകാം മറ്റ് പല വിളകളും നമ്മുടെ കിഴങ്ങ് വര്ഗങ്ങളാകാം എല്ലാം കൂടുതലായി സംഭരിക്കപ്പെടുന്ന സാഹചര്യത്തില് വിലയ്ക്ക് വില തീരെ ഇല്ലാതാകുന്നു അപ്പോള് കര്ഷകനെ സംബന്ധിച്ചത് ഭയങ്കരമായ മനോവിഷമത്തിനും അവര്ക്ക് ജീവന് ജീ ജീവന് ഹനിക്കുന്നതിനുമൊക്കെ അത് സാധ്യമാക്കുന്നു വഴിയൊരുക്കുന്നു അപ്പം ഏറ്റവും കൂടുതൽ നേരിടുന്നത് കര്ഷകന് അവരുടെ ഉൽപന്നങ്ങള്ക്ക് ന്യായമായ വില ലഭ്യമാവുന്നില്ല പിന്നെ വിപണി ഉണ്ടാവുന്നുണ്ട് പക്ഷേ വെ ഉൽപന്നങ്ങള്ക്ക് വേണ്ടത്ര വില ലഭ്യമാകുന്നില്ല അതിനായിട്ട് അവർ ഒരുപാട് പ്രതിഷേധങ്ങളും പിന്നെ സമരമുറകളും ഉപവാസ സ സത്യാഗ്രഹങ്ങളും ഒക്കെ ഇരിക്കാറുണ്ട് ഇതുപോലെ വലിയ ഇന്ത്യന് ജനത നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നേ അവരുടെ അപ്പം അതിനുള്ള സാ സംവിധാനങ്ങൾ കണ്ടെത്തി അവരെ അതനുസരിച്ച് ബദല്മാര്ഗ്ഗങ്ങള് രൂപീകരിച്ച് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം